എൻ്റെ ഒര് വ്യക്തിപരമായ ഒരു കാര്യം പറയാണെങ്കിൽ ഞാനൊരിക്കലും ഒരു പരിശീലനം ലഭിച്ച ഫോട്ടോഗ്രാഫർ അല്ല പക്ഷേ എന്നിരുന്നാലും ഒരു ഫോണും ഒര് ഫോണിൻ്റെ ക്യാമറയും ഉള്ളിടത്തോളം കാലം ആർക്കാണേലും എപ്പളും ഒരു ഫോട്ടോഗ്രാഫറാകാം എന്നേ ഉള്ളു അല്ലെങ്കിൽ അത് നല്ല ഫോണുള്ളവർ നല്ല ക്യാമറ ഉള്ളവർ പിന്നെ ഇത് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നത് പാഷനായിട്ട് എടുത്തവർ ഒരു കരിയർ ആയിട്ട് എടുത്തത് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പഷേ പലവർക്കും കഴിവുള്ളവർക്കും പലവർക്കും ഒരു നല്ലൊരു ഡിവൈസ്സ് നല്ലൊരു ഫോണോ ക്യാമറയോ ഇല്ലാത്തത് കൊണ്ട് പലവരും മുന്നോട്ട് വരാതെ മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ സംബദ്ധിച്ചൊരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കൈയിലൊരു സാധാരണ ഫോണും ഒരു സാധാരണ ക്യാമറയുമുണ്ട് അപ്പം അതും വെച്ചെനിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഫോട്ടോസ് ഞാനെപ്പളും ഞാനെടുക്കുന്ന എല്ലാ ഫോട്ടോസ്സും എപ്പളും മികച്ചതാന്ന് തന്നെയാണെൻറ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുവാണെങ്കിൽ കാരണം ഒരിക്കലും ഞാൻ എടുത്തത് മറ്റുള്ളവരേ വെച്ച് കമ്പെയർ ചെയ്യാറില്ല ഞാൻ പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾള് ഞാൻ എടുത്തത് എപ്പഴും മികച്ച തന്നെയാന്നെനിക്കെപ്പളും പറയാൻ സാധിക്കത്തൊള്ളു പക്ഷെ മറ്റുള്ളവരേ വെച്ച് നോക്കുമ്പം അത് ചിലപ്പം മോശവായതാരിക്കും അങ്ങനെ ആയിരിക്കും മറ്റുള്ളവരേ വെച്ച് അത് കമ്പെയർ ചെയ്യുമ്പോൾ പക്ഷെ എനിക്കതൊരിക്കലും ഇതുവരെ എൻ ഞാൻ എടുത്ത ഫോട്ടോസൊന്നും മോശവായതാന്ന് പറയാൻ സാധിച്ചിട്ടില്ല